ഹലോ അതേലോ ആരാ വിളിക്കുന്നത് ആ അനു എന്ത് വേണം ഞാൻ ഇവിടുത്തെ അ ആ പറഞ്ഞോളൂ

ആ ഈ മൂന്ന് അയിറ്റംസ് ആണോ വേണ്ടത് ആ ആ എത്രപേർക്ക് വേണം ആ ഓക്കെ ഓക്കെ ഓക്കെ എ എന്നത്തേക്കാ അനു വേണ്ടത് വരുന്ന ശനിയാഴ്ചത്തേക്ക് അതായത് പതിനൊന്നാംതിയതിയാണ് വരുന്ന ശനിയാഴ്ച വരുന്ന ശനിയാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണല്ലേ ആ ഓക്കെ നിങ്ങൾക്ക് അതായത് ഇത് വീട്ടിൽ സെർവ് ചെയ്യാനാണോ അതോ നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കാനായിട്ടാണോ ആ ഓക്കെ ഓക്കെ ഓക്കെ പാർസല് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടാണല്ലേ ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണോ അതോ ഏകദേശം ഇപ്പ നമ്മൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് പറഞ്ഞാൽ മതിയല്ലോ അപ്പം കാൽക്കുലേറ്റ് അമ്പത് എണ്ണത്തിൻ്റെ അപ്പം നമ്മൾ കരിമീൻ പൊള്ളിച്ചതിന് റേറ്റ് ഇച്ചിരി കൂടുതലാണെ അത് നൂറ്റമ്പത് രുപയാവും ഒരു പീസിന് കരിമീൻ പൊള്ളിച്ചെടുക്കുന്നതിന് കരിമീൻ ഫ്രൈക്ക് നമുക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് തരാൻ പറ്റും വരാൽ ഫ്രൈ പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് അതായത് മൂന്ന് പീസ് കാണും അത് ആ ഒരു പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ആണ് അപ്പം അതായത് അ അപ്പം അത് മൂന്ന് പീസ് ഉണ്ടാകും അത് നൂറ് രൂപയ്ക്കാണ് കരിമീൻ പൊള്ളിച്ചത് നൂറ്റമ്പത് രുപയാകും കരിമീൻ ഫ്രൈക്ക് നൂറ് നൂറ്റിപ്പത്ത് രുപ അതാണ് നമ്മുടെ റേറ്റെ ആ നൂറുരൂപയും ആ അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കും ചെയ്ത് തരുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് അത്ര റേറ്റ് ആകുന്നത് നമ്മൾ കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് ഫ്രൈ ആ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ ആ അതുകൊണ്ടാണേ അപ്പം നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് റേറ്റ് ഇപ്പം ചില ആൾക്കാർ റേറ്റ് നോക്കും പക്ഷെ ചില ആൾക്കാർ റേറ്റ് നോക്കില്ല അവർക്ക് നല്ല ഭക്ഷണമാണ് വേണ്ടതേ അപ്പം ആ ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തരാം പിന്നെ നോക്കട്ടെ നമ്മൾ ഇത്രയും അമ്പത് പേർക്ക് ഒക്കെ എടുക്കുമ്പം എന്തെങ്കിലും കുറവ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ നമ്മൾ അന്ന് അത് ബില്ലേൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് തരാം കേട്ടോ ആ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ആ നല്ല സേവനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ആ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തുതരുന്നതായിരിക്കും അപ്പം ശനിയാഴ്ച പതിനൊന്ന് മണിയാവുമ്പം കിട്ടിയാൽ മതിയല്ലോ അല്ലേ നിങ്ങൾ പിക്ക് ചെയ്യുമോ അതോ ഞങ്ങൾ കൊണ്ട് തരണോ കൊണ്ട് തരണമെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അവിടെ പാർസൽ എത്തിക്കാം ആ വേണ്ട വേണ്ട അന്നേരം പറഞ്ഞാൽ മതി അന്നേരം ഒന്ന് വിളിച്ചാൽ മതി ഒന്ന് വിളിച്ചിട്ട് ലൊക്കേഷൻ പറഞ്ഞുതന്നാൽ മതി ആ ആ ആ ആ ഓക്കെ ഓക്കെ ശരി ഓക്കെ താങ്ക് യൂ ഞങ്ങൾ എതിച്ചുതരാം കേട്ടോ പതിനൊന്നാംതിയതി എതിച്ചുതരാം ശരി എന്നാൽ ഓക്കെ താങ്ക് യൂ ഓക്കെ താങ്ക് യൂ സോ മച്ച്